ആ എന്താണ് സുഖമല്ലേ പിന്നെന്താണ് അറിയാണ്ട് അതെയല്ലേ എങ്ങനെയുണ്ട് കോളേജ് ഒക്കെ

എന്താണിത്ര മോശം പറയാൻ ഞങ്ങള് പഠിക്കുമ്പോൾ കുഴപ്പമൊന്നുമുണ്ടാരുന്നില്ലല്ലോ

ക്ലാസ്സിൽ കയറിയാലല്ലേ അറ്റന്റൻസ് കിട്ടുള്ളൂ

ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഇട്ടു തന്നിട്ടില്ല ഞങ്ങളൊക്കെ ഡെയ്ലി ക്ലാസ്സിൽ കയറിയിട്ടാണ് അറ്റന്റൻസ് വാങ്ങണത് ഓ പിന്നെ ആ എന്താണ് പ്രൊജക്ട് ഒക്കെ ആയോ പ്രൊജക്ട് ഒക്കെ ആയോ എവിടെയാണ് ചെയ്തതെന്നു വെച്ചാൽ

കോളേജിൽ വച്ചുതന്നെ ആ ബാങ്കിൽ നമ്മള് കസ്റ്റമേഴ്സിൻ്റടുത്ത് കസ്റ്റമേഴ്സ് ആയിരുന്നില്ലേ അപ്പോൾ അവരുടെ ഡാറ്റ കളക്ഷൻ ആയിരുന്നു നമ്മുടെ ക്ലാസ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമല്ലോ അത് എസ് ബി ഐ ആവണം എന്നൊന്നുമില്ല പക്ഷെ എന്നാലും അവർക്കറിയാമല്ലോ ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ എന്നു ഡാറ്റ കളക്ഷൻ ചെയ്തിട്ടുണ്ടാരുന്നത് അതിനു നമ്മൾ പുറത്തിറങ്ങി നടക്കുവൊന്നും നമ്മുടെ പിള്ളേർ തന്നെ എടുത്താൽ മതി നന്നായി

ടീച്ചേർസ് പറഞ്ഞു തരുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഗൈഡ് ആരാണ് നിനക്ക്

സർ ആ സർ നന്നായി പറഞ്ഞുതരുമല്ലോ നല്ല പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞുതരും ഓ നിങ്ങളെ ഗ്രൂപ് പ്രൊജക്ട് ആണാ

അത് ഞങ്ങള് ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു അതാണ് ചോദിച്ചത് എന്നിട്ടേ ചെയ്തു തീർന്നില്ല

ഓ ഞാനിവിടെയെക്കെ തന്നെയുണ്ട് ഞാനിവിടൊരു കമ്പനില് കയറിയിട്ടുണ്ട് അക്കൗണ്ടന്റ് ആയിട്ടു തന്നെ വെറുതെ കയറിയിരിക്കുകയാണ് കോളേജ് കഴിഞ്ഞതല്ലേ അതെയതെ വെറുതെ അതെ

അത് നിങ്ങൾ കഴിഞ്ഞിട്ടിറങ്ങുമ്പം അറിയും അതൊക്കെ റെഡിയാകും കോളേജ് ലൈഫൊക്കെ അടിച്ചു പൊളിക്ക് സപ്പ്ളിയൊക്കെയുണ്ടോ ആ അതെയതെ ആ എഴുതിയെടുക്ക് അടുത്തതിലേക്ക് പോകുമ്പോഴേക്കും ഇതൊക്കെ പാസ്സാകണം ഓ അതിനൊക്കെ ആനന്ദ് സർ ആയിരുന്നു പ്ലേസ്മെന്റിന് സർ ഇല്ലേ ഇപ്പോൾ അന്നൊക്കെ പ്ലേസ്മെൻറ് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടുമൂന്നു പേര് ആ പ്ലേസ്മെന്റില് കയറിപ്പോയി എന്ന് തോന്നുന്നു മാർക്കൊക്കെ അവര് നോക്കും നന്നായിട്ട് പ്രസന്റ് ചെയ്യ്

ആ റെഡി റെഡി ആ ശരി കാണാം